ചിത്രകലയിലെ പ്രക്രിയകളില് ആദ്യം തന്നെ വരുന്നത് ആശയ ഉത്ഭവമാകും അതായത് നമ്മളെന്താ വരക്കണ്ടേ എന്നുള്ളൊരു ഉദ്ദേശം ആ ആശയം ഉണ്ടാകുന്നതിനെയാണ് ഈ ഫസ്റ്റ് പ്രോസസില് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അത് പ്രകൃതിയിലെ ഏതെങ്കിലും ദൃശ്യമോ അത് അഥവാ ഏതെങ്കിലും ഫോട്ടോയോ ഏതെങ്കിലും ആള്ക്കാരെയോ അങ്ങനെയോ ഇപ്പോൾ തീരുമാനത്തെയാണ് ആശയ ഉത്ഭവം എന്നു പറയുന്നത് അടുത്ത പ്രക്രിയ വന്നിട്ട് ഈ ചിത്രം വരക്കുന്നതിനായി നമുക്ക് എന്തെല്ലാം ആവശ്യമാണെന്നു കണ്ടുപിടിക്കുകയും അതെല്ലാം കളക്റ്റ് ചെയ്യുകയുമാണ് അതായത് ഇപ്പോൾ പെന്സില് പേപ്പര് ഏത് ഏതെല്ലാം നിറങ്ങളാണ് വേണ്ടേ എവിടെയാണ് വരയ്ക്കാന് ഉദ്ദേശിക്കുന്നത് അതൊക്കെയാണ് ഈ രണ്ടാമത്തെ പ്രക്രിയയില് വരുന്നത് അങ്ങനെ മൂന്നാമത്തെ പ്രക്രിയയിലേക്ക് പോകുമ്പോൾ ആദ്യം വളരെ മൃദുലമായ ഒരു ലെയറില് ഔട്ട്ലൈന് വരക്കുന്നതാകാം ഇപ്പോൾ ഒരു മല ആണെങ്കില് മല ചെറുതായിട്ട് ഒന്നു വളരെ ഒരു കളറില് തന്നെ ലൈറ്റ് ആയിട്ട് വരക്കുന്നതാകാം ആ മൂന്നാമത്തെ പ്രക്രിയ നാലാമത്തെ പ്രക്രിയയിലേക്ക് കടക്കുമ്പോള് ഒന്നു കൂടി മികച്ച രീതിയില് അതു വരക്കുന്നതാകാം ഇപ്പോൾ കളറുകള് ആഡ് ചെയ്യലും നിറങ്ങള് ആഡ് ചെയ്യലും പല പാളികളിലായിട്ട് ഷേയിടിംഗ് പെന്സിൽ കൊണ്ട് ഷെയിഡ് ചെയ്യലും അതെല്ലാമാകാം ആ അവസാനത്തെ പ്രക്രിയ പിന്നെ അവസാനത്തെ പ്രക്രിയയിലേക്ക് വരുമ്പോൾ ഫിനിഷിംഗ് എന്നു വേണേല് പറയാം അതായത് ഇപ്പോൾ വല്ല തെറ്റുകള് ഉണ്ടേല് തിരുത്തുകയോ അല്ലെങ്കില് ആ ചിത്രത്തെ ഒന്നു കൂടി മെച്ചപ്പെടുത്താന് എന്തെങ്കിലും ആശയങ്ങള് കൊണ്ടുവരികയോ ആകാം പിന്നെ ഓഫ് ലൈന് ഓണ് ലൈനായിട്ട് ചിത്രകലയെപറ്റി പഠിക്കണമെങ്കിൽ ഓണ്ലൈനിൽ ഒരു മികച്ച പ്ലാറ്റ്ഫോം ആണ് യൂട്യൂബ് അതിൽ തന്നെ ഫ്രീയായിട്ട് പല കോഴ്സുകളും പല വീഡിയോസുകളിലൂടെ നമുക്ക് ചിത്ര കല എന്താണെന്നു പഠിക്കാം അഥവാ ഓഫ് ലൈന് ആണേൽ നമ്മടെ ലോക്കല് സ്ഥലങ്ങളിലായിട്ട് പല പല ചിത്ര പഠിപ്പിക്കുന്ന ക്ലാസ്സുകളുണ്ട് അതിൽ ചേരാം അല്ലേല് ഉപരിപഠനം ചിത്രകലയിലായിട്ട് നമുക്ക് എടുക്കാം അപ്പം നമുക്ക് കുറച്ചു കൂടി മികച്ച രീതിയില് തന്നെ ചിത്രകല പഠിക്കാം അപ്പോൾ ഞാന് അവസാനം വരച്ച ഒരു ചിത്രത്തിന്റെ പ്രക്രിയ പറയുകയാണേൽ ഞാന് ഒരു മലയും പുഴയും ഒരു തോണിയുമുള്ള ഒരു ചിത്രമാണ് അവസാനമായി വരച്ചത് അപ്പോൾ അതിന്റെ പ്രക്രിയകള് പറയുകയാണെ ആദ്യം ഞാനിത് കണ്ടിട്ട് എനിക്കൊരു ആശയം ഉണ്ടായി എന്താ വരക്കേണ്ടതെന്ന് അതിനുവേണ്ടിയുള്ള സാധനങ്ങള് ഞാന് ശേഖരിച്ചു അതുകഴിഞ്ഞിട്ട് ഞാന് മെല്ലെ പയ്യെ പെന്സിൽ കൊണ്ട് ഔട്ട്ലൈന് വരച്ച് തുടങ്ങി അതുകഴിഞ്ഞിട്ട് എനിക്ക് വേണ്ട നിറങ്ങളെല്ലാം ഞാന് ആഡ് ചെയ്തു തുടങ്ങി അതുകഴിഞ്ഞിട്ട് അവസാനം ഞാന് വല്ല തെറ്റുണ്ടോ അതോ വീട്ടുകാര്ക്ക് കാണിച്ചു കൊടുത്ത് വല്ല മെച്ചപ്പെടാന് വല്ല ഭാഗം ഉണ്ടേല് അതൊന്നു മെച്ചപ്പെടുത്തി എടുത്തു ഇതാണ് ഞാന് അവസാനം വരച്ച ചിത്രത്തിന്റെ പ്രക്രിയകള്